ഹലോ ആ ഹലോ ആ ആ ഇത് ശ ശരവണ ഹോട്ടലാണോ ഹോ ആ അതിപ്പോൾ ഞങ്ങളേ ഈ ഗുരുവായൂരമ്പലത്തിൽ വ വന്നതാണ് അവിടുന്ന് കുമരകത്തുന്ന് ആ അപ്പോൾ ഇവർ ഇപ്പം ഒരു പത്ത് ആ ഒരു പത്ത് പേര് ഉണ്ട് അപ്പം ആ അവിടെ വന്നാൽ ഹോട്ടൽ എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആ അല്ല വെജിറ്റേറിയനാണ് എല്ലാവർക്കും വേണ്ടത് എന്നാൽ ഒക്കെയുണ്ട് ആ

ആ ചപ്പാത്തി എല്ലാം ഉണ്ടല്ലോല്ലേ ഒന്ന് എന്നാൽ ഒരു രണ്ട് മൂന്ന് ഇത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പേർക്ക് അപ്പവും അപ്പവും മുട്ടക്കറിയോ എടുക്കാൻ പിന്നെ അപ്പം വെജിറ്റേറിയൻ ആ വെജിറ്റബിള് പിന്നെ എന്നാൽ ആ പിന്നെ മസാലദോശയുണ്ടോ മസാലദോശ എന്നാൽ അഞ്ചെണ്ണം ആ മസാലദോശ അഞ്ചെണ്ണം

പിന്നെ ആ ബാക്കി ആ ബാക്കി പേർക്ക് ചപ്പാത്തി ചപ്പാത്തിയും കൂടെ മതി അപ്പവും ചപ്പാത്തീം മസാലദോശയും മാത്രം ആ പിള്ളേരുണ്ട് പിള്ളേരും ഉണ്ട് പിന്നെ ആ അത്ര അത്രേം മതി ആ പിന്നെ വഴി ആ ഇവിടുന്ന് ആ ആ ഹാ ആ ആ ആ അവിടെ എങ്ങനാണ് പാർക്കിങ് സൗകര്യമൊക്കെ ഉണ്ടല്ലോല്ലേ പാർക്കിങ്

പിന്നെ ടോയ്ലെറ്റ് ടോയ്ലെ ആ ആ ഉണ്ട് ആ ആ പ്രായം ഉള്ളവരുണ്ട് പിള്ളേരുണ്ട് ആ അപ്പോൾ ഞാൻ ഒന്ന് ആ എല്ലാം നീറ്റല്ലേ

ആ കുടിക്കാൻ കാപ്പി ചായ മതിയായിരിക്കും ആ ആ ആ

ആ അതൊന്നും വേണ്ട ഒന്നും വേണ്ട ഇപ്പം ആയല്ലോ അത് മതി ആ എന്നാൽ ആ ആ എന്നാൽ ഇത് മതി എത്തിക്കോളം അപ്പം ആ ആ ഇത്രേം മതി ഇത്രേം മതി മതി മതി ഓക്കെ